ക്രിക്കറ്റ് ആണെങ്കിലും ബാറ്റിംഗ് ചെയ്യുമ്പോൾ ബോൾ എറിയുന്നതിനു തൊട്ടു മുൻപ് ക്രീസിൽ നിന്നു പുറത്തിറങ്ങി ഹാഫ് പുറത്തു എറങ്ങീട്ടു അടിക്കുമ്പോഴും അതേപോലെ ലോങ്ങ് റേഞ്ചിൽ നിന്നു ബോൾ വരുമ്പോൾ അതു നേരിടുകയും അതുമായിട്ടു ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എത്ര ദൂരത്തിൽ അടിക്കാം എന്നൊരു കണക്കു കൂട്ടുന്നത് ആ ഒരു കണക്കിലാണ് എത്ര സ്കോർ എടുക്കാമെന്നു കണക്കാക്കുന്നതും മറ്റു എല്ലാ രീതികളിൽ നിന്നും അടിച്ച ബാറ്റ് ബോളുമായി ടച്ച് വരുമ്പോൾ തന്നെ ക്രീസിൽ നിന്നു ഓടുകയും മറ്റു റൺ എടുക്കുകയും ചെയ്യുന്നു